മലയാളത്തിൽ സംസാരിക്കുമ്പോഴോ എഴുതുമ്പോഴോ എനിക്ക് നേരിടേണ്ടി വന്ന ബുദ്ധിമുട്ടുകളെന്നു വെച്ചാൽ സംസാരിക്കുമ്പം ഓക്കേയാണ് പക്ഷേ എഴുതുമ്പോഴെനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ സി ബി എസ് സി സ്കൂളിലാണ് പഠിച്ചു വന്നത് അവിടെ എട്ടാം ക്ലാസ്സായപ്പോഴാണ് മലയാളമെന്ന പാഠപുസ്തകം അവരവതരിപ്പിച്ചതും ഇത് പഠിക്കണമെന്നു പറഞ്ഞത് അതു വരെ ഞങ്ങൾ ഫോളോ ചെയ്തത് ഇംഗ്ലീഷ് മാത്രമാണ് ഇംഗ്ലീഷ് പോലെ സുഖമമായി പഠിക്കുന്നൊരു ഭാഷയല്ല മലയാളം എനിക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ട് പക്ഷേ വായിക്കാനുമെഴുതാനുമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ പ്രശ്നമനുഭവിച്ചത് ഇംഗ്ലീഷ് പോലെ എഴുതാൻ പറ്റുന്നില്ല എഴുതുന്ന സമയത്ത് അതൊന്നും കറക്റ്റായി വരുന്നില്ല ഹാൻഡ് റൈറ്റിംഗ്ങ്ങൊക്കെ വളരെ മോശമായിട്ടാണ് എൻ്റേത് പോയി കൊണ്ടിരുന്നത് മലയാളത്തിലെഴുതുമ്പോൾ വായിക്കാനാണെങ്കിൽ എനിക്കത് കൊഴ കുഴപ്പമില്ല ഓക്കേയായിരുന്നു ഈ പ്രശ്നങ്ങൾക്കാണ് ഞാൻ മലയാളത്തിൽ സംസാരിക്കുമ്പോഴും എഴുതുമ്പോഴൊക്കെ എനിക്ക് ഉണ്ടാകുന്ന ഏറ്റവും അധികം ഞാൻ നേരിടേണ്ടി വന്ന ബുദ്ധിമുട്ടുകൾ